എനിക്ക് കൂടുതലും എല്ലാ ചെടികളും വളർത്താൻ ഇഷ്ടമാണ് എന്നാലും പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം പച്ചക്കറി വളർത്തുന്നതിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക പൂവ് പൂക്കളോ പൂക്കൾ പൂക്കൾ ഒക്കെ വളർത്തുക എന്ന് വിചാരിക്കുക പൂക്കൾ വളർത്താൻ വിചാരിക്കുക എന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും സംഭവം ശരിയാണ് ഭംഗി ഉണ്ടാവും കുറേ പൂവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമ്പോൾ ഭംഗി ഉണ്ടാവും പക്ഷേ എനിക്ക് ഒന്നുകൂടെ നമുക്ക് എനിക്ക് ഒന്നുകൂടെ നമുക്ക് ലാഭം ഒന്നുകൂടെ ഞാൻ നോക്കുമ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ പഴങ്ങളും പച്ചക്കറികളൊക്കെ വളർത്തുന്നതാണ് ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ ഗുണം ചെയ്യുന്നത് കാരണം ഒന്നുകൂടെ എനിക്ക് ഇഷ്ടവും അത് തന്നെയാണ് കാരണം ഇപ്പോൾ പൂവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ വയ്ക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫലം ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കായ പച്ചക്കറിയും അല്ലെങ്കിൽ പഴങ്ങൾ നമുക്ക് അത് അതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ വിളവ് എടുക്കണ സമയത്ത് നമുക്ക് കിട്ടണ സന്തോഷം അത് വേറെ തന്നെയാണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോളും പച്ചക്കറിയാണെങ്കിലും അതെ ഫ്രൂട്ട്സ് ആണെങ്കിലും അതെ ഇത് രണ്ടും എനിക്ക് വളർത്താൻ കൂടുതൽ ഇഷ്ടം കാരണം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ കുറേ വളർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് പച്ചക്കറി പച്ചക്കറി വാങ്ങുന്നതാണെന്നുണ്ടെങ്കിലും അതെ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പച്ചക്കറി വാങ്ങലൊക്കെ കുറച്ചിട്ട് നമുക്ക് എന്താണ് പറയുക വീട്ടിൽ ഉണ്ടാക്കിയ അതായത് തീരെ വളം ഒന്നും ചേർക്കാത്ത അതായത് ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചേർക്കാത്ത അതല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത അത്രയ്ക്കും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കഷ്ട്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പച്ചക്കറി ച് കഴിക്കുമ്പോൾ അത് ആരോഗ്യത്തിനും ഒന്നാമത് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു സന്തോഷവും കൂടെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് കുറേ പഴം കിട്ടുക അല്ലെങ്കിൽ കുറേ പച്ചക്കറി കിട്ടുക അത് നമ്മൾ ബാക്കിയുള്ള അയൽവക്കത്തും ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നട്ടതാണെന്നുള്ള രീതിക്ക് നമ്മൾ വളർത്തിയത് നമ്മുടെ എന്താണ് പറയുക എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നമ്മൾ അവടെപ്പോയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും നമ്മളത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക അപ്പം ഒരു ഒരു സന്തോഷം ആണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ കമ്പ്ലീറ്റ് എല്ലാ എന്താണ് എല്ലാ തൈകളിലും ഓരോരോ കായ ആണെങ്കിൽ ഒരോരൊ കായ അത് ഉണ്ടായി കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ആണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പൂക്കൾ നട്ടുവളത്തുന്നതിനെങ്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ തട്ട് നട്ടിട്ട് വളർത്തിയിട്ട് നട്ട് വളർത്താനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്